ഇത് ഇവൻറ് മാനേജ്മെൻറിൽ മാനേജർ അല്ലേ നിങ്ങൾ കഴിഞ്ഞ ദിവസം നടത്തിയ കല്യാണത്തിന്റെ ഓണർ ആണ് ഈ നിങ്ങൾക്ക് ബാക്കി പൈസ തരാൻ ഉണ്ടല്ലോ അപ്പം അത് അതിന്റെ കാര്യം ചോദിക്കാൻ അപ്പം ഇതെല്ലാം കൂടെ എത്ര രൂപ ആവും എത്ര രൂപ രൂപയാകും ആ ഓക്കെ അത് നാളെ എത്തിച്ചാൽ മതിയോ ഓഫീസിൽ ഇപ്പം നിങ്ങൾ ഫുഡ് സൂപ്പർ ആയിരുന്നു പ്രത്യേകിച്ച് പറയാനില്ല സൂപ്പർ ആയിരുന്നു എല്ലാം സൂപ്പർ ആയിരുന്നു പിന്നെ ബുഫേ സൂപ്പർ എന്നാണ് കല്യാണത്തിന് വന്ന ആൾക്കാരൊക്കെ അഭിപ്രായം അതിൽ ചിക്കൻ കൊണ്ടുള്ള ഐറ്റംസ് ആണ് ആളുകൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് വെൽ വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ സൂപ്പർ ആയിട്ടുള്ള കളർഫുൾ ആയിരുന്നു സൂപ്പർ ആയിരുന്നു ഓ അത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു നല്ല ബിഹേവിയർ ആയിരുന്നു പിന്നെ അവർക്ക് എത്ര രൂപ ശമ്പളമാണ് ഇത് ശമ്പളം ഓക്കെ പിന്നെ നിങ്ങൾ നിങ്ങളുടെ കാറ്ററിങ്ങുകാരുടെ ഡ്രസ്സ് സൂപ്പർ ആയിരുന്നു അത് നീറ്റ് ആയിട്ടാണ് അവർ കീപ്പ് ചെയ്തത്

ഡെക്കറേറ്റിങ്ങ് ഫ്ലവർ കൊണ്ടുള്ള സൂപ്പർ ആയിരുന്നു അത് അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു

എല്ലാവരും തന്നെ ഓക്കെ അപ്പം ഇനി വല്ല ഇവൻറ് മാനേജ് വന്നാൽ അങ്ങനെ വല്ലതും വന്നാൽ നമ്മൾ നിങ്ങളെയാണ് വിളിക്കാൻ ഉദ്ദേശി ഉദ്ദേശിക്കുന്നത് ആ ഓക്കെ ഓക്കെ സൂപ്പർ ആയിരുന്നു പിന്നെ അവസാനം രാത്രി നമുക്ക് ഫുഡ് നിങ്ങൾ കറക്റ്റ് സമയത്ത് എത്തിച്ചു അത് ഫുഡ്ഡിന്റെ ചെറിയ കുറവ് വന്നപ്പോൾ നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് കൊണ്ടുവന്നു അപ്പം അതിന് നിങ്ങൾക്കൊരു ബോണസ് തരാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത് ആ സൂപ്പർ സൂപ്പ് കൊള്ളാമായിരുന്നു എനിക്ക് ചിക്കൻ ആണ് പേഴ്സണലി ഇഷ്ടം അപ്പം അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അതുപോലെ നമ്മുടെ ഫാമിലിയിലും നമ്മൾ വിളിച്ച ആൾക്കാർക്കും കൂടുതലും ഇഷ്ടം ചിക്കൻ ആയിരുന്നു ഐസ്ക്രീം സൂപ്പർ ആയിരുന്നു കുറേ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ആ ഓക്കെ അത് ഞാൻ കണ്ടു ഐസ്ക്രീമിന്റെ ഭാഗത്ത് ഭയങ്കര തിരക്കായിരുന്നു അത് നിങ്ങൾ കൃത്യസമയത്തിന് ഒതുക്കി ഒതുക്കി ഏ അത് അത് നമുക്ക് ശരിയാക്കാം അത് ഇന്ന് വൈകിട്ട് വരാൻ പറ്റുമോ നിങ്ങൾക്ക് നിങ്ങളുടെ മാനേജ്മെൻറിന് ആ ഓക്കെ ഓക്കെ ഓക്കെ ആ ആ ഓക്കെ

ആ നിങ്ങളെ തന്നേ വിളിക്കൂ